ഇപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ നഗരങ്ങളിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഫുള്ള് ജങ്ക് ഫുഡ്സ് കാര്യങ്ങള് അതായത് വൃത്തിയില്ലാത്ത ഫുഡുകള് ഇപ്പം നമ്മള് ഇവിടെന്നല്ലാണ്ട് നമ്മള് പുറത്തേതെങ്കിലും സ്ഥലങ്ങളിലും കാര്യത്തിനൊക്കെ പോകുവാണെങ്കിൽ അതായതിപ്പോൾ നമ്മള് നമ്മുടെ ഗ്രാമം വിട്ട് പുറമെ നഗരങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പോകുവാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ കണ്ടാൽ തന്നെ അറിയാം അവിടെ വൃത്തിഹീനമായിട്ടുള്ള ഫുഡുകള് പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫുഡുകള് നമുക്ക് ശരീരത്തിന് തന്നെ ഹാനീകരമായിട്ടുള്ള പല ഫുഡുകള് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതല് നഗരങ്ങളിലൊക്കെ കിട്ടാറ് അപ്പം അതപേക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫുഡ് ഏറ്റവും നല്ലൊരു ഫുഡാണ് നമ്മുടെ വീട്ടിലെ ഫുഡ് അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂടുതലായിട്ടും ആ ഒരു അതായത് ശരീരത്തിനൊന്നും ഒരു ഹാനീകരമായിട്ടുള്ള ഫുഡാണ് വീട്ടിലെ ഫുഡ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം സാധാ ഹോട്ടലുകളിലൊക്കെ സാധാ ഊണൊക്കെ കിട്ടും അതൊന്നും നമുക്ക് ശരീരത്തിന് ഹാനികരമോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേയെല്ലാം പോകുമ്പോൾ ആണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ വില അറിയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആയോധന കളരി കലകള് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലും നല്ല ഫുഡ് അതായത് നമുക്ക് നല്ല ഫുഡ് സമയത്തിന് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് കഴിച്ചാലേ നമ്മളിപ്പോൾ ആയോധനകലകളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ